എനിക്കിപ്പോൾ സാധാരണ ഇഷ്ടമുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ കപ്പയും ബീഫും കപ്പയും മീനും പിന്നെ ബിരിയാണി ഇഷ്ടമാണ് പിന്നെ ഫൈവ സ്റ്റാർ ഫുഡ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ നാൺ ബട്ടർ നാൺ അൽഫാമ് അങ്ങനത്തെ ഫുഡ് ഒക്കെയാണ് സാധാരണ കഴിക്കാറ് ഇതൊക്കെ ഞാൻ സാധാരണ ഇപ്പോൾ കപ്പയും ബീഫും ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്ഥലം സ്ഥലത്ത് തന്നെ ഒരു ജോസേട്ടൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട് പുള്ളിയുടെ ഷോപ്പിൽ എന്താന്നുവച്ച് കഴിഞ്ഞാൽ കപ്പയും ബീഫും ഭയങ്കര ഫേമസായിട്ടുള്ള ഒരു ഫുഡാണ് പിന്നെ പാപ്പിളശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എന്താപറയാ കപ്പയും ബോട്ടിയും നല്ല ഫേമസ്സാണ്

അതും അല്ലെങ്കിൽ പിന്നെ ഖത്തർ റസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ പോകും അവിടെയൊക്കെയാണ് നമുക്ക് ഈ ഫൈ സ്റ്റാർ ഫുഡുകളൊക്കെ സാധാരണ കിട്ടുന്നത് ഇവിടെന്നൊക്കെയാണെങ്കിൽ ഞാൻ സാധാരണ എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാറ്